ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒര് എലക്ട്രോണിക് പ്രൊഡക്റ്റ്സായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൺ പ്ലസ് നോഡിൻ്റെ ഫസ്റ്റ് സിരീസ് ഫോണ് ഇത് എനിക്ക് വളരെ അധികം ഉപകാരപ്പെട്ട ഒരു ഫോണായിരുന്നു ഞാൻ നാട്ടില് ലോക്ക് ഡൗൺ കോവിഡ് കാലത്താണ് ഞാനിത് മേടിച്ചത് അതിനാൽ തന്നെ എനിക്കെൻ്റെ വർക്കുകളും പഠനങ്ങളും പരീക്ഷകളും എല്ലാം ഇതിലൂടെ ചെയ്യാൻ സാധിച്ചു വളരെ അധികം സ്പെഷ്യാലിറ്റി ഉള്ളൊര് ഫോണാണിത് വളരെ അധികം പ്രത്യേകതകളുണ്ട് കാരണം ഇത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്താറ് ജി ബി സ്റ്റോറേജ് സ്പേസും ഉണ്ട് അതിനാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കീൻറ്റാത്ത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഒരിക്കലും ഹാംഗ് ആയി ഇതുവരെ എനിക്ക് ഇതുവരെ അങ്ങനെയൊര് പ്രോബ്ലം എനിക്കിത് വരെ തന്നിട്ടില്ല അങ്ങനെയൊര് പ്രശ്നത്തിലേക്ക് എൻ്റെ ഈ ഫോൺ ഇതുവരെ പോയിട്ടില്ല അതിനാൽ തന്നെ ആ വളരെ അധികം ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനും ക്രിയേട്ട് ചെയ്യാൻ ക്രിയേട്ട് ചെയ്തെടുക്കാനും എനിക്കിതിന്റെ അകത്ത് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ ഇപ്പോൾ ഒര് ഫോട്ടോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് ക്രിയേട്ട് ചെയ്ത് അയച്ച് കൊടുക്കാനും എല്ലാത്തിനും ഈ ഫോണെനിക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇത് ഞാൻ മേടിച്ച ആദ്യമായിട്ട് മേടിച്ച ഒരുപകരണങ്ങളിൽ എനിക്കേറ്റവും ഉപകാരപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത്